സാർ എന്റെ പേര് സിനു ഞാൻ വലിയതുറയിൽനിന്നാണ് വരുന്നത് അപ്പോൾ എന്റെ വീടിനോട് അടുത്തായിട്ട് തന്നെ എനിക്ക് കുറച്ച് കൃഷിഭൂമി ഉണ്ട് അവിടെ മെയ്ൻ ആയിട്ടും പച്ചക്കറികൾ ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെനിന്ന് ഇത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇവിടെനിന്ന് ഞാൻ വിള ഇൻഷുറൻസ് എടുത്തായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആണ് കൃഷികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരു ഞാൻ ഇപ്പോൾ അന്ന് എന്റെ അച്ഛന്റെ പേരായിരുന്നു എൻ്റെ പേരിന്റെ കൂടെ വെച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം ആയിക്കാണും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർനേയ്മ് ആയിട്ട് എന്റെ ഭർത്താവിന്റെ പേരാണ് വച്ചിരിക്കുന്നത് അപ്പോൾ പഴയ ഇൻഷുറൻസ്സ് വിള ഇൻഷുറൻസിൽ നിന്ന് എന്റെ പേര് മാറ്റി ഇപ്പം ഭർത്താവിന്റെ പേര് വെച്ചിട്ടുള്ള സർനെയിം ആക്കണം എന്റെ പേര് ഇപ്പം പുതിയ പേര് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആവശ്യം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും മാരേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാഡ് ചേഞ്ച് ചെയ്തതും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ സാർ ഒന്ന് പറഞ്ഞാൽ മതി എന്റെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഞാനിപ്പോൾ നിലവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത് ഇത് ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്ന എന്തെങ്കിലും പോളിസി അപ്ഡേറ്റുകളോ ചേഞ്ചുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുംകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നെങ്കിക്ക് ഉണ്ട് അപ്പോൾ ഇത് എത്ര നേരമെടുക്കും അതായത് എപ്പോൾ കഴിയും എന്ന് വേറെ എവിടെയാണ് ഈ ഓഫീസിൽ പോവേണ്ടത് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ അത് മാത്രമല്ല സർട്ടിഫിക്കറ്റ് ചേഞ്ച് കിട്ടി പെട്ടെന്ന് അതൊന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു മാത്രമല്ല ഇപ്പം രണ്ട് ഈ പേര് മാറ്റാതെ ഇപ്പം ബാക്കിയുള്ള വിള ഇൻഷുറൻസിനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം ഞാൻ ഈ ഇടയ്ക്കായി ട്ട് എന്റെ ആധാർ കാഡിലെ പേര് മാറ്റിയായിരുന്നു അപ്പം രണ്ടും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആധാർക്കാഡിലും ഇപ്പം നിലവിലുള്ള വിള ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിലും രണ്ടും രണ്ട് പേരാണ് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് രണ്ടും ഒരേപോലെ ആക്കിയാരുന്നെങ്കിൽ എനിക്ക് അതിനുള്ള ഇൻഷുറൻസ്സ് കിട്ടാനുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ചെയ്തുതന്നാൽ വലിയ ഉപകാരമായിരുന്നു സാർ നന്ദി